ഹലോ അനസ് കാക്കയല്ലേ ഞാൻ കഴിഞ്ഞ തവണ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എന്നെ കഴിഞ്ഞ തവണ ഞാനും നിങ്ങളുമായിട്ട് ഞാനും എൻ്റെ ഫാമിലിയും കൂടിയി ട്ട് നിങ്ങളുടെ കാറിലായിരുന്നു മൂന്നാർ വരെ പോയിട്ടുണ്ടായിരുന്നത് ഓർക്കുന്നുണ്ടോ എന്നെ എൻ്റെ പേര് ഹഫീഫ എന്നാണ് അതെയോ ആ ഓർക്കുന്നുണ്ടല്ലേ ഞാനേ വിളിച്ചത് എന്തിനാണെന്ന് വച്ചാൽ എനിക്ക് ഒരു യാത്ര കൂടി പോകാനായ്ട്ട് ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് താങ്കളെ താങ്കൾക്ക് ഈ ഒരു ഡേയ്റ്റ് ഞാൻ പറയുന്ന സമയത്തിന് എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്നറിയാൻ വിളിച്ചതാണ് സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഡേറ്റ് ഞാൻ പറയാം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ് സർവീസ് ഞങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് തരുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത് അതെ നമ്മൾ കഴിഞ്ഞ തവണ മൂന്നാറിലേക്ക് പോയത് ഓർമ്മയില്ലേ നല്ല അടിപൊ ളി യാത്ര ആയിരുന്നു ഞങ്ങൾക്കൂണ്ടായിരുന്നത് യാത്ര സൗകര്യങ്ങളക്കെ വളരേ മനോഹരമായിട്ട് നിങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം വച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും നിങ്ങളെ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം അപ്പം ഈ വരുന്ന ബുധനാഴ്ചത്തേക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും കൂട്ടിയിട്ട് ഒന്ന് ഊട്ടി വരെ പോകണം എന്നുണ്ടായിരുന്നു അതിന് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത് ഊട്ടിയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര സുഖകരമാക്കാൻ എത്രയും നല്ലത് നിങ്ങളുടെ സർവീസാണ് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വിളിച്ചത് ആ ഡേറ്റിന് നിങ്ങൾക്ക് വരാൻ പറ്റില്ലേ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ആ ബുധനാഴ്ചത്തേക്ക് ഞങ്ങളുടെ കൂടെ യാത്രയിൽ തുടരണമെന്ന് ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട് കാർ സർവീസ് ഞങ്ങൾക്ക് കിട്ടില്ലേ ആ അതെ അതെ ബുധനാഴ്ചത്തേക്ക് ഓക്കേ